ഇപ്പത്തെ കാലത്ത് എല്ലാ കാര്യത്തിനും പരസ്യമാണ് മുമ്പില് കാരണം പരസ്യ മാർഗത്തിലൂടെയാണ് മറ്റൊരു അതായത് മറ്റൊരാളിലേക്കെത്തിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാധ്യമം നമ്മള് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് എത്തിക്കുന്നതിനേക്കാളും ഭേദം എല്ലാവർക്കും ആകർഷണീയമായിട്ടുള്ള പരസ്യങ്ങളിലൂടെ എല്ലാവരും ക്യാച്ച് ചെയ്യും അത് അവര് മനസ്സിലേക്ക് ഓടിയെത്തുകയും ചെയ്യും ആ കളക്ഷൻസ് സ്വർണത്തിൻറെ ആണെങ്കിൽ കളക്ഷൻസ് അവരുടെ ആ ഒരു സ്റ്റൈല് അവര് അതിനെ കുറിച്ച് പറയുന്ന ആ ഇത് അതൊക്കെ മനസ്സിലെത്തുമ്പോൾ അതു കൊള്ളാമെന്നുള്ള ചിന്ത ആളുകളിലേക്കെത്തും അതേപോലെ ഡ്രസ്സിലായാലും ഇത്ര ശതമാനം കിഴിവുണ്ട് എന്നൊക്കെ പറയും പക്ഷേ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാല് നമുക്കെന്തറിയാം ഇപ്പം പരസ്യ മാർഗ്ഗത്തിലൂടെ മാത്രമാണ് നമുക്കാളുകളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുവേണ്ടി പരസ്യം മുഖ്യ ഘടനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പരസ്യം ഇല്ലാതെ ഒരു കാര്യം നമുക്കവരിലേക്കെത്തിക്കാൻ വളരെ പ്രയാസമാണ് നമുക്ക് പറഞ്ഞിതാക്കുന്നേനേക്കാളും പരസ്യം അ ഈസ്റ്റേൺ കിച്ചൻറെ റഷ്യസ് ഇപ്പം നമുക്ക് ചിക്കൻ മസാല സാമ്പാർപൊടി രസം അവരത് ഉണ്ടാക്കി ഇങ്ങനെ ടെയിസ്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഓ അത് സൂപ്പറാണ് നമ്മളങ്ങനെയല്ലേ അല്ലേ വിചാരിക്കുക അങ്ങനെ നമ്മള് വാങ്ങിച്ച് നമ്മള് പിന്നെ മീകറീൻറെ കൂടെയും ചിക്കൻ കറീൻറെ കൂടെയും ഒക്കെ ഉണ്ടാക്കില്ലേ അങ്ങനെയാണ് കാര്യങ്ങള് ചെയ്യുന്നത് അതേപോലെ ഡ്രെസ്സിൻറെയായാലും പിന്നെ വണ്ടികള് പെയിൻറ് എന്തിനാണ് പരസ്യ ഇല്ലാത്തെ എല്ലാത്തിനും പരസ്യം ഉണ്ടാകും പരസ്യം മാർഗ്ഗമാണ് മറ്റുള്ളവരിലേക്കു അവരുടെ ആ പരസ്യം സൃഷ്ടിക്കുന്നത് അതായത് നമ്മള് മണപ്പുറത്തിൻറെയൊക്കെ പരസ്യം അതൊക്കെ വരുന്ന ആ ഒരിത് അവരെങ്ങനെയാണ് ക്രീയേറ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് അവതരിപ്പിക്കുന്ന രീതി വെച്ചിട്ടാണ് ആളുകളുടെ ഉള്ളിലേക്കത് കയറുന്നത്